ഉപഭോക്താക്കളിൽ നിന്നും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ കൈകൊണ്ട് നിർമ്മിച്ച വസ്ത്രം ഞാൻ സമ്മാനമായിട്ട് ഞാനെൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മക്ക് കൈകൊണ്ട് അടിച്ച അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ഞാനൊരു ഒരു ചുരിദാറിന് ഒരു ടോപ്പ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊടുത്തപ്പോൾ ഒരുപാട് ഞാൻ ഒരുപാട് ഞാൻ അടിക്കണം അല്ലെങ്കിൽ അമ്മക്കിങ്ങനെ ചെയ്തുകൊടുക്കണം എന്നാഗ്രഹിച്ചു ചെയ്തതായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിനു ചുറ്റുമുള്ളവരായിക്കോട്ടെ അവർക്ക് ഞാനിങ്ങനെ അടിക്കണ കാര്യമൊക്കെ അറിയാം അപ്പോൾ അത്യാവശ്യത്തിനുള്ള ചെറിയ കുട്ടികളുടെ ആയിക്കോട്ടെ ഇങ്ങനെ തുണി അടി തുണി എടുത്തിട്ട് അടുപ്പിക്കുന്നവരെ അങ്ങനെ അടിച്ച് അങ്ങനെ ഉള്ളവരെ എൻ്റടുത്ത് എൻ്റെ കയ്യില് വന്നു തരാറുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായാണ് ഓരോരുത്തരും നല്ല കാര്യങ്ങള് പറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മള് കുറച്ചുംകൂടി മെച്ചപ്പെടുത്തും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറയാണെന്നു വെച്ചാൽ എവിടെയാണ് നമുക്കാ ഒരു മിസ്റ്റേക്ക് വരുന്നത് അതിനനുസരിച്ച് അത് ഇമ്പ്രൂവാക്കാൻ നോക്കും അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയണത് അങ്ങനെ വല്യ വല്യ തുണിയൊന്നും ചെയ്യാറില്ല അത്യാവശ്യത്തിനു വീട്ടിനു ചുറ്റുമുള്ള പ്രദേശത്തും ആൾക്കാരും കുട്ടികൾക്കും അങ്ങനെ അറിയുന്നവർക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ തീർച്ചയായും കുഴപ്പമില്ല അമ്മയ്ക്കാണ് ഞാനങ്ങനെ ആദ്യമായിട്ട് കൈകൊണ്ട് നിർമ്മിച്ച വസ്ത്രം കൊടുത്തിട്ടുള്ളത് അമ്മക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ കുറച്ചു കുറച്ചു ചെറിയ ചെറിയ കാര്യങ്ങള് ചെയ്യും